എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു നല്ല ഞാൻ പി എസ് സി നോക്കുന്നുണ്ട് ഒരു പി എസ് സി ജോലി ആരാണ് ആഗ്രഹിക്കാത്തത് ഭാവി എങ്ങനെയായിരിക്കണം കരിയർ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകണം അല്ലെങ്കിൽ പുറത്തുപോകണം അല്ലെങ്കിൽ ഇവിടെത്തന്നെ ഗവൺമെൻറ് സാലറി എന്തെങ്കിലും ഒരു ജോലി ജോലി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജോലി ഇല്ലാതെ ഒരു നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല എനിക്ക് ജോലി മസ്റ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് സ്ത്രീയെന്ന ഒരു പരിഗണ വെച്ച് നമുക്ക് സ്ത്രീയാണ് ജോലിക്ക് പോകരുത് കുടുംബത്തിൽ തന്നെ തളക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ മാറി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തു പോകാൻ നോക്കുന്നുണ്ട് എനിക്ക് പുറത്തുപോയി സെറ്റിലായാലും നാട്ടിൽ നിന്ന് പോകണമെന്നൊന്നും ആഗ്രഹമില്ല പക്ഷെ നമ്മുടെ കരിയർ നമുക്ക് പിന്നെ കൂടുതൽ പണം വേണമെങ്കിലൊക്കെ നമുക്ക് പുറത്തു പോയേ മതിയാകൂ ഇവിടെനിന്ന് കിട്ടുന്ന തുച്ഛമായ വേദനം കൊണ്ട് നമുക്ക് ഒന്നും ആവില്ല എനിക്ക് കുറേ ഡ്രീം ഉണ്ട് അപ്പം നല്ല ജോലി നല്ല കരിയർ അതൊക്കെയാണ് ഞാനാഗ്രഹിക്കുന്നത്